ഇപ്പോൾ എൻ്റെ കൈയിലിരിക്കുന്ന മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മൊബൈൽ ഫോണാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന റിയൽമി റിയൽമിൻ്റെ ഫൈവ് എ എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ഫോണാണിത് അപ്പം നല്ല രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇടക്ക് ചെറുതായിട്ട് ഹാങ്ങാവുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാരിറ്റിയിൽ ഫോട്ടെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ ആ കുറെ നാൾ മുന്നേ ഇറങ്ങിയ ഒരു ഫോണാണ് ഇപ്പമൊരു അഞ്ചാറ് വർഷമായിട്ട് യൂസ് ചെയ്യുന്നു വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ചാർജും അത്യാവശ്യം നിൽക്കുന്നുണ്ട് പിന്നേ എന്താ പറയാ ഇനിയിപ്പോൾ നെഗറ്റീവെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഫോട്ടെയെടുക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് അല്ല വയ് വെയ്റ്റ് കൂടുതലായതുകൊണ്ട് കൊണ്ടു നടക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ പോക്കറ്റിലൊക്കെ ഷർട്ടിൻ്റെ പോക്കറ്റിലക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷർട്ടിങ്ങനെ തൂങ്ങി കിടക്കുന്നതായിട്ടക്കെ ഫീലെയും അപ്പം ഭയങ്കര ബോറാണ് അപ്പം അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി പിന്നെ ചാർജ് പെട്ടന്ന് പെട്ടന്ന് കയറുന്നില്ല ഒരു നാലഞ്ച് മണിക്കൂർ കുത്തിയിട്ടാൽ മാത്രമേ നമുക്ക് ഫുൾ ചാർജ് കയറുന്നുള്ളു ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ നെഗറ്റീവ്ന്നൊക്കെ പറഞ്ഞാൽ